ഹലോ കാലിക്കറ്റ് ക്യാബ് ഏജൻസിയല്ലേ അപ്പോൾ ഞാൻ പിന്നെ കാലിക്കറ്റിൽ നിന്ന് വിളിക്കുന്നതാണേ അതെയതേ ഞാൻ ബേപ്പൂരിൽ നിന്ന് വിളിക്കുന്നതാ അപ്പോൾ നമുക്ക് ഒരു പിന്നെ സെവെൻ സീറ്റർ വണ്ടി വേണമായിരുന്നു ഹാ അതെ അതെ അപ്പോൾ അത് അവൈലബിളാണോ എന്നറിയാൻ വേണ്ടിയാ യിരുന്നു ജസ്റ്റൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയോ ആ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ അപ്പോൾ ഡെയ്റ്റ് എപ്പഴാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ തേർട്ടീന്തിനാണേ അപ്പോൾ നമ്മൾ പിന്നെ എറണാകുളത്തേക്കാണ് അപ്പോൾ പോകേണ്ടത് അപ്പോൾ നമുക്ക് അതായത് ഒക്ടോബർ തേർട്ടീൻത് നമുക്ക് ഈവനിങ് പോയാൽ മതി അതായത് ഈവനിങ് ഒരു അഞ്ചു മണി അഞ്ചരയാവുമ്പോൾ പോയാൽ മതി നമുക്ക് പിറ്റേ ദിവസം മോർണിങ്ങാവുമ്പോഴത്തേക്കും അവിടെ എത്താൻ പറ്റില്ലേ അപ്പോൾ തേർട്ടി ഫസ്റ്റിന് നമുക്കൊരു മ്യാരേജ് ആണ് അപ്പോൾ മ്യാരേജിന് മ്യാരേജ് ആവുമ്പോഴത്തേക്കും നമുക്കവിടെ എത്തി ഫ്രെഷ് അപ്പ ആവാനുള്ള ഒരു ടൈമുണ്ടാവില്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഒന്ന് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണോ ആണ് അല്ലേ ഹാ ഹാ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ എത്രയാണ് പേയ്മെന്റ് എന്ന് വച്ചാൽ നിങ്ങളൊന്ന് വാട്ട്സപ്പ് ചെയ്യുമോ ഞാൻ എന്നാൽ ഗൂഗിൾ പേയിൽ പിന്നെ ക്യാഷ് സെന്റ് ചെയ്ത് തരാം ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു